ഹലോ സാര് ഞാൻ ഞാന് നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ വാടകയ്ക്കെടുത്ത ആളാണേ അപ്പോൾ ഞാനവിടെ ഒരു നമ്മുടെ ബുക്ക് പബ്ലിഷിംഗ് എജെന്റ് പുസ്തക വില്പ്പനശാല തുടങ്ങാനാണ് വിചാരിക്കുന്നത് അപ്പം അതിനുവേണ്ടീട്ടവിടെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഒന്നും ഇടാന് വേണ്ടീട്ട് എലക്ട്രിസിറ്റി സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം അതിന്റെ കണക്ഷനെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിന്ന് അവരുടെ എലക്ട്രിസിറ്റി കേരള എലക്ട്രിസിറ്റി ബോഡിന്റെ ഓഫീസിൽ പോയി നമ്മുടെ തൈക്കാട് തന്നെയുള്ള പക്ഷെ അവര്ക്ക് അവിടെയാര്ക്കും അവര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കുറേ രേഖകളവർ ചോദിയിക്ക്ന്നുണ്ടിപ്പം നമ്മുടെ കരമടച്ച രസീതും അതുപോലെത്തന്നെ നിങ്ങളുടെ എനിക്ക് വാടകക്ക് തന്നുവെന്നുള്ളതിന് രേഖയും ആധാറും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതിന്റെ കാര്യങ്ങളതെപ്പം കിട്ടും അത് എങ്ങനെയാണതിന്റെ കാര്യങ്ങൾ സംസാരിക്കാന് വേണ്ടീട്ടാണിപ്പം സാറിനെ ഞാന് വിളിച്ചത് അപ്പം ഞാൻ എപ്പം വന്നാൽ സാറിനെ കാണാന് പറ്റും എനിക്കിത് കണ് എത്രയും പെട്ടന്നൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യമായിരുന്നു കാരണം എന്തുവാണ് ഇപ്പോൾ രണ്ട് മാസമായല്ലോ നമ്മളിപ്പം വാടകക്കെടുത്തിട്ടും അപ്പോൾ എത്രയും പെട്ടന്ന് പണിയൊക്കെ തുടങ്ങി സ്ഥലം കട ഓപ്പണ് ചെയ്യാനാണെന്റെ പ്ലാന് അങ്ങനെ അടുത്ത മാസം ഒരു ജൂലൈ മുപ്പതോടു കൂടി കട ഓപ്പണ് ചെയ്യാനാണ് പ്ലാന് അപ്പം അതിന്റെ വേണ്ടിയിട്ടുള്ള രേഖയും കാര്യങ്ങളുമൊക്കെ സാറൊന്നെടുത്ത് വെച്ചേക്കുമോ നാളെ രാവിലെ ഞാനൊരു പത്ത് മണിയൊക്കെ ആവുമ്പം വരാം ശരി സാര് താങ്ക് യൂ